എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഉത്തമമായി തോന്നുന്നത് ഇൻ്റർനെറ്റ് വഴിയുള്ള ബാങ്കിങ്ങ് ആണ് ഇപ്പം മുഖാമുഖം കൊണ്ട് കണ്ടുകൊണ്ടുള്ള ബാങ്കിങ്ങ് ആവുമ്പം അത് ഇപ്പം കുറച്ച് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെതായിട്ടുള്ള ഇപ്പം ഇൻ്റർനെറ്റ് വഴിയുള്ളതാകുമ്പം നമുക്ക് സൗകര്യപ്രദം ആണ് ഇപ്പം നമുക്ക് ഇവിടുന്നും ബാങ്കിങ്ങ് ചെയ്യാം ഇപ്പോൾ ഒരാൾക്ക് പൈസ അയയ്ക്കണമെങ്കിൽ തന്നെ നമുക്ക് ബാങ്കിൽ പോവേണ്ട ആവശ്യമില്ല ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് പൈസ അയയ്ക്കാം ഇപ്പോ മുഖാമുഖം കണ്ടുകൊണ്ടുള്ളതാവുമ്പോൾ നമുക്ക് ആ ബാങ്കിൽ പോയിട്ട് അതിൻ്റെതായ കുറേ പ്രോസിജിയറുകളുണ്ട് കുറേ സമയം എടുക്കും ഒരുപാട് സമയം വേണം മുഖാമുഖം കണ്ട് ഉള്ള ബാങ്കിങ്ങ് ആകുമ്പോൾ ഈ ഇൻ്റർനെറ്റ് ഇല്ലാതാകുമ്പോൾ നമുക്ക് ചിലവാകുന്ന സമയം കുറവാണ് അതുപോലെ ഒരുപാട് അങ്ങനെ അല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാം ചെയ്യാം പറ്റും ഇപ്പം പൈസ അയയ്ക്കാനാണെങ്കിലും അന്നേരം അത് എന്തെങ്കിലും എല്ലാം ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലും ഇപ്പം ഒരു കടയിൽ പോയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ആണ് ഒരു ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് വളരെ എളുപ്പമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏകദേശം ആൾക്കാറും ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് തന്നെയാണ് ഇപ്പം ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടാവസ്ഥ വന്നാൽ ബാങ്കിൽ പോയിട്ട് ഒരാൾക്ക് പൈസ ഇട്ട് അയാൾക്ക് ലഭിക്കുന്ന അത് കുറേ സമയം എടുക്കും ആ ബാങ്കിലേക്ക് പോവണം പിന്നെ അവിടുന്ന് പൈസ അടയ്ക്കണം ഒരുപാട് സമയം എടുക്കുന്ന പരിപാടിയാണ് അതിന് പകരം ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് എന്ന് പറഞ്ഞ് ഒരുപാട് ആപ്പുകൾ ഇപ്പം നമുക്ക് ലഭ്യാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനായിട്ട് ഗൂഗിൾ പേ ഫോൺപേ പേ ടി എം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ വിരൽ തുമ്പിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഉപകരപ്രദമാണ് നമുക്കെത്ര ഞൊടിയിടയിൽ തന്നെ നമുക്ക് പൈസ വേറെ ഒരാൾക്ക് എത്തിക്കാം എന്ത് കാര്യങ്ങൾക്കായാലും അതിപ്പോൾ എല്ലാ ഇപ്പോൾ ഓരോ ഒരു ചെറിയ കടയിലാകട്ടെ എവിടെയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ഡിജിറ്റൽ സേവനങ്ങൾ അവൈലബിൾ ആണ് അതായത് കയ്യിലിപ്പം പൈസ ഇല്ലെങ്കിലും അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നമ്മുടെ ദൈനംദിനകാര്യങ്ങൾ നടത്തികൊണ്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പോ എവിടെ എങ്കിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ല സാധനം വാങ്ങണം മുമ്പാണെങ്കിൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പെട്ടു ഇതാകുമ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക് ഒരു കൂട്ടുകാരനോട് പറഞ്ഞാൽ നമുക്ക് പൈസ അയയ്ക്കാൻ പറയാം എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് നമ്മുടെ പരിപാടിയെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും എല്ലാ ഏത് സ്ഥലത്ത് ഏത് കടയിൽ ഇപ്പോൾ ഹോട്ടൽ ആയാലും സാധാരണ റേഷൻ അരി പീടിക ആയാലും ഒരു കോളേജ് ആയാലും എവിടെ ആയാലും ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് അവൈലബിൾ ആണ് അപ്പം വളരെ എല്ലാ ഇതിപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സേവനത്തിനായാലും നമ്മുടെ കയ്യിൽ നമ്മൾ പെട്ടെന്ന് ഒരു അപകടത്തിൽ പെട്ടു നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തി അപ്പം നമ്മള കയ്യിൽ പൈസ ഇല്ല അപ്പോൾ അപ്പം തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് സൗകര്യം ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് ഒരാളോട് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ സൗകര്യവും എല്ലാം കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ എത്തിക്കാൻ പറ്റും അങ്ങനൊരു ഉപയോഗം ഉണ്ട് ഇൻ്റെനെറ്റ് ബാങ്കിങ്ങ് കൊണ്ടുള്ള നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും സമയക്കൂടുതൽ ഉണ്ട് അതേപോലെ ഇപ്പം നമ്മൾ എലക്ട്രിസിറ്റി ബിൽ എല്ലാം കറണ്ട് ബിൽ എല്ലാം അടയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ കറണ്ട് മറ്റേ കെ എസ് ഇ ബിയിൽ പോവണം എന്നിട്ട് അവിടെ തന്നെ ക്യൂ നിൽക്കണം അടയ്ക്കണം ഇതാകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ബിൽ കിട്ടി അപ്പം തന്നെ അടച്ച് കൊടുക്കുക അപ്പം തന്നെ ബിൽ പേ ആയി നമുക്ക് അവിടെ അങ്ങോട്ട് പോവാനോ ഒന്നും അങ്ങനത്തെ ഒന്ന് പരിപാടി ഇല്ല ഇപ്പം മൊബൈലിൽ റീചാർജ് ചെയ്യുവാണെങ്കിൽ മുമ്പ് കടയിൽ പോവണം റീചാർജ് ചെയ്യണം ടി വിയുടെ ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഒരു എൽ ഐ സിയുടെ പൈസ അടയ്ക്കണം എന്ന് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ആ ഷോപ്പിൽ പോവണം എന്നിട്ട് പൈസ അടയ്ക്കണം അങ്ങനെയെല്ലാം ആണ് കുറേ ദൂരം പോവണം ഇതാവുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ സേവനങ്ങളും അതിപ്പം ഏത് ഇൻഷുറൻസ് ആയാലും എന്തിൻ്റെ പൈസ ആയാലും അങ്ങനെയാണ് ടി വിയുടെ പൈസ ആണെങ്കിലും ഫോണിൻ്റെ പൈസ ആണെങ്കിലും എന്തിൻ്റെ പൈസ ആണെങ്കിലും നമുക്ക് വീട്ടിൽ ഇരുന്ന് നമ്മുടെ വിരൽ തുമ്പിൽ വെച്ച് എല്ലാം ചെയ്യാവുന്നതാണ് അതിനൊന്നും ഒരു മുടക്കവും ഇല്ല ഒരുപാട് സേവനങ്ങൾ അതിപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കം നമുക്ക് ഇപ്പോൾ പേ ടി എമ്മിൽ ആയാലും ഫോൺപേ ആയാലും എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനും ഒരു കുറവില്ല എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ ഇപ്പോൾ ലഭ്യമാക്കുന്നുണ്ട് അതെല്ലാം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങ് കൊണ്ട് ഇന്ന് ഒരുപാട് ഗുണങ്ങളാണ് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിൽ വന്നിട്ടുണ്ട് ഇപ്പം ആണെങ്കിൽ നെറ്റ് ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലഭ്യമല്ലെങ്കിലും നമുക്ക് ഇതേപോലത്തെ ബാങ്ക് പണമിടപാടുകൾ നടത്താനുള്ള ഒരു അവസരം കൂടി വരുന്നുണ്ട് ഒരുപാട് സാങ്കേതിക വിദ്യയുള്ള നമ്മുടെ ഈ ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ ഇതിലേക്ക് വരുന്നുണ്ട് അതിപ്പം ഏത് കാര്യത്തിലായാലും ഇന്നേക്ക് കൂടി റീചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയോ ദൂരം പോയി കടയിലേക്ക് പോയെങ്കിൽ റീചാർജ് ചെയ്യണം ഇതിപ്പം തീർന്നു ആ അപ്പം തന്നെ അപ്പം തന്നെ ഫോൺ എടുക്കുക ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ എല്ലാം എല്ലാം അവ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പം അപ്പം തന്നെ റീചാർജ് ചെയ്യുക എല്ലാ പരിപാടികൾ അവിടെ തന്നെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഒരു സമയം എടുക്കുന്നില്ല ഒന്നിനും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആയി ഇപ്പോൾ എന്തെങ്കിലും എല്ലാ ആവശ്യത്തിനും ഇപ്പം ഏതായാലും ഇപ്പോൾ ചെറിയ കുട്ടി മുതൽ വലിയവർ വരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുന്നു ബാങ്കിങ്ങ് എല്ലാം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ എല്ലാവരും സുഖമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അത് എങ്ങനെ പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി എന്നെല്ലാം യൂസർ ഫ്രണ്ട്ലി എന്നെല്ലാം പറയില്ലേ എല്ലാവർക്കും ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ആണ് അത് അത് എല്ലാവർക്കും എന്ത് കൊണ്ടും ഉപയോഗം ഉപയോഗപ്രദമാണ് അതുകൊണ്ടുള്ള അതാകുമ്പോൾ എല്ലാത്തിനും നമ്മൾ സമയം എടുക്കും ക്യൂ നിൽക്കണം വെയ്റ്റ് ചെയ്യണം അത് ഓരോരാൾ അനുസരിച്ച് ബാങ്കിനനുസരിച്ചും അവിടെയുള്ള ആൾക്കാരനുസരിച്ചും എല്ലാം മാറും ഇതാകുമ്പോൾ നമുക്ക് നമ്മളെ നമ്മളെ നോക്കിയിട്ടല്ല എല്ലാ ഇടത്തും ഒരേ തരത്തിലുള്ള സേവനമാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് കിട്ടുന്നത് വേറെ ഒരു കുഴപ്പമില്ല